ഫോട്ടോഗ്രാഫി എനിക്ക് വളരെ ഇഷ്ടപെട്ടൊരു മേഖലയാണ് ഞാൻ വളരെയധികം ആസ്വദിച്ചും സന്തോഷത്തോടു കൂടി ചെ ചെയ്യുന്ന ഒരു മേഖലയാണ് ഫോട്ടോഗ്രാഫി കാരണം ജീവിതത്തില് ഒരാളുടെ ജീവിതത്തില് ഫോട്ടോഗ്രാഫിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നൊരാളാണ് ഞാന് കാരണം നമ്മുടെ ലൈഫിലെ മിക്ക മൊമെൻസും നമുക്ക് വീണ്ടും റിക്കലക്ട് ചെയ്യാൻ പറ്റുന്നത് ഫോട്ടോഗ്രാഫിയിലൂടെയാണ് ഞാൻ ദേശീയ തലത്തില് മത്സരിച്ചിട്ടുണ്ട് അതില് എനിക്ക് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചോരാധ്യാപകനാണ് എനിക്ക് അതിലേക്കുള്ള വഴി തുറന്ന് തന്നത് സാറായിരുന്നു എൻ്റെ ഫോട്ടോസയച്ച് കൊടുക്കുകയും ഞാ എൻ്റെ ബാക്കി കാര്യങ്ങള് ചെയ്യുകയും ചെയ്തത് സാറിൻ്റെ ഒറ്റരാളുടെ ഒരു കരുതലും സ്നേഹവും കൊണ്ട് മാത്രവാണ് എനിക്കവിടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത് അവിടുന്നെനിക്ക് പതിനായിരൊത്തൊന്ന് രൂപയും ഒരു ക്യാ ഒരു സർട്ടിഫിക്കറ്റുമാണ് ലഭിച്ചത് അതുപോലെ തന്നെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു എന്ന പദവിയും എനിക്ക് ലഭിച്ചു അങ്ങനെ ഒരുപാട് അതിലൂടെ തന്നെ എനിക്കൊരുപാട് മേഖലയിലേക്ക് കടന്ന് ചെല്ലാൻ സാധിച്ചു ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപെട്ടതും ഞാൻ വളരെയേറെ ആസ്വദിച്ച് ചെയ്യുന്നതുമായൊരു മേഖലയാണ് ഫോട്ടോഗ്രാഫി